മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു മധുരമുള്ള ഭാഷ തന്നെയാണ് നമ്മുടെ മാതൃഭാഷ മലയാളം നമ്മൾക്കുള്ള അറിവും ജ്ഞാനവും എല്ലാം നമുക്ക് ഈ മലയാള ഭാഷയിലൂടെയാണ് ലഭിച്ചത് എന്തിന് നമ്മൾ ശിശു ആയിരിക്കുമ്പോൾ ഇന്നത് ഇന്ന സാധനമാണ് അല്ലെങ്കിൽ ആ പോയത് ഇന്ന ആളാണ് എന്ന് നമ്മുടെ അമ്മ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഈ മലയാള ഭാഷയിലൂടെയാണ് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് താരാട്ട് പാട്ട് പാടി തരുന്നു അമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നു അച്ഛൻ എന്നു വിളിക്കാൻ പഠിപ്പിക്കുന്നു ഇതെല്ലാം നമ്മുടെ ഈ മലയാള ഭാഷയിലൂടെ ആണ് അങ്ങനെ നമ്മൾ മലയാളഭാഷ പഠിച്ച് കുറച്ചു ചെല്ലുമ്പോൾ നമ്മൾ വേറെ ഏത് ഭാഷകൾ പഠിച്ചാലും നമ്മൾ നമ്മുടെ മനസ്സിൽ ഈ പഠിച്ച ഭാഷയെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ആ പറഞ്ഞ കാര്യം എന്നും എന്താണ് അവിടെ സംഭവിക്കുന്നു എന്നും നമ്മൾ ഉൾക്കൊള്ളുന്നത് കാരണം ഈ പഠിച്ച രണ്ടാമത് നമ്മൾ പഠിച്ച വേറൊരു ഭാഷ മലയാളത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിവർത്തനം ചെയ്താലേ എന്താണ് ആ പറഞ്ഞതെന്ന് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ അതുപോ അത്രയ്ക്ക് മൂല്യമുള്ള ഒന്നാണ് ഭാഷ അതായത് നമ്മുടെ മാതൃഭാഷ മലയാളം മലയാളം തികച്ചും നല്ല ഒരു ഭാഷ തന്നെയാന്ന് പറയണം കാരണം പല പല കവിതകൾ പ കവിതകളിൽ മലയാളത്തെ കുറിച്ച് ഒത്തിരി വ്യാഖ്യാനിക്കുന്നുണ്ട് മലയാളം എന്ന ഭാഷ നമ്മൾ ഇപ്പോൾ വേറൊരു സംസ്ഥാനത്ത് ചെന്നാലും നമ്മൾ വേറൊരു രാജ്യത്ത് തൊഴിലധിഷ്ഠിതമായി നമ്മൾ വേറൊരു രാജ്യത്ത് ചെന്നാലും നമ്മൾ മലയാളം ഭാഷ എവിടുനിന്നെങ്കിലും മലയാളം ഭാഷയിൽ മ ഏതെങ്കിലും ഒരു സംസാരം കേക്കുവാണെങ്കിൽ നമ്മൾ ആ വശത്തേക്ക് ഒന്ന് നോക്കും കാരണം അതിനോടുള്ള ആ ഭാഷയോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു വാത്സല്യവും നമ്മുടെ ഉള്ളിൽ നമുക്ക് ജമനാ ജന്മനാ കിട്ടിയ ഒരു കാര്യമാണ് അത് നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞ ഒരു അമൃതമായി തന്നെ അത് നമ്മൾ എത്ര വ്യത്യസ്ത ഭാഷകൾ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ പഠിച്ചു എന്നു പറഞ്ഞാലും നമ്മുടെ അമ്മ അതായത് മാതൃഭാഷ അതേ മാതൃ തുല്യമായ ഭാഷ മലയാളം എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാകും